ആ അതെ മിസ്സിനെ കുറെ നാളായല്ലോ കണ്ടിട്ട് ഓ അതേയോ ഭർത്താവിൻ്റെ അസുഖം എങ്ങനെയുണ്ട് ഓ അതേല്ലേ അതിൻ്റെ ആവശ്യത്തിന് പോയി കാണ് പോയതായിരിക്കുവല്ലേ ആ മാഡത്തിനെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കെയാണേ മാഡം പറഞ്ഞ വിത്തിനങ്ങളും തൈകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം മാഡത്തിനെ കണ്ടത് കൊണ്ട് എൻ്റെ കോളൊന്ന് ഒഴിവായി കിട്ടി കുറച്ച് തിരക്കിലായത് കൊണ്ടാണ് ഞാൻ വിളിക്കാൻ മറന്ന് പോയത് ഓ അതേല്ലേ

ആ വാഴ വാഴ കന്ന് വന്നിട്ടൊണ്ട് പിന്നെ കുറച്ച് തെങ്ങിൻ തൈയും കവുങ്ങിൻ തൈയും പിന്നെ കുറച്ച് പച്ചക്കറി വിത്തും കുറച്ച് പച്ചക്കറി തൈകളുവാണ് വന്നിട്ടുള്ളത് ആ ഉണ്ട് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും പിന്നെ എല്ല് പൊടിയും ഉണ്ട് എൻ്റെ കൈയ്യില് പിന്നെ ചാണകം വേണങ്കില് പറഞ്ഞാൽ അത് ഞാൻ ഏർപ്പാടാക്കി കൊടുക്കാം എൻ്റെയൊരു സുഹൃത്തിന് പശു വളർത്ത് കേന്ദ്രമുണ്ട് അവിടെ പറഞ്ഞാല് ആവര് റെഡി ആക്കി തരും

ആ കഴിഞ്ഞ പ്രാവശ്യം എന്നാൽ ആൾക്കാര് അത് വേണ്ടത്ര ജൈവ വളവൊന്നും ഉപയോഗിച്ച് കാണൂല എല്ലാവർക്കും മടിയല്ലേ

ആ കൊടുക്കണം പിന്നിപ്പം എല്ലാവർക്കും പിന്നെ അദ്ധ്വാനിക്കാൻ മടിയല്ലേ പെട്ടന്ന് ഇംഗ്ലീഷ് വളാകുമ്പോ അത് എടുത്ത് ഇട്ടിട്ട് കഴിഞ്ഞാല് പണി തീർന്നില്ലേ പിന്നേ ആ എത്ര തെങ്ങിൻ തൈകൾ വേണം മാഡത്തിന് ഒരു നൂറ്റമ്പത് രൂപയാണ് മാഡം ഇപ്പം വാങ്ങിക്കുന്നത് ആ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിന് മുന്നേ കൊണ്ട് വന്ന തൈയ്യില് ഒരു തെങ്ങിൻ തൈ ഞാൻ കൊണ്ട് നട്ടായിരുന്നു അപ്പോൾ ഞാനതിന് പച്ചില തോലും ചാണകവും ചാരം എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് പോരാത്തതിന് ഗോമൂത്രവും ഉപയോഗിച്ചു അപ്പോൾ പെട്ടന്ന് അത് വളർച്ച വരികയും നല്ല കായ് ഫലം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആ ശരിയാണ് പക്ഷേ ഗോമൂത്രം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കാൻ പറയണം ഇപ്പഴത്തെ കാലാവസ്ഥ ചൂടേറിയതായതുകൊണ്ട് അതുപയോഗിക്കുമ്പോള് അതിൻ്റെ ചോട്ടില് ഒഴിച്ച് കൊടുക്കാതെ നീക്കി ഒഴിച്ച് കൊടുക്കണം പിന്നെ ധാരാളം വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇല്ലെങ്കില് തൈകള് ഉണങ്ങി പോകും

ആ പിന്നെ മാഡം പറഞ്ഞ ആ നെൽ വിത്തിനം മാത്രം കിട്ടിയില്ല അത് ഞാൻ പക്ഷേ എങ്കില് തെങ്ങിൻ തൈ ഇനി വരുമ്പോൾ അതിൻ്റെ കൂടെ കൊടുത്തു വിടാം ഇപ്പോൾ നമ്മൾ സാധാരണ എപ്പഴും വിളിക്കുന്ന ആ വണ്ടിക്കാരനെ വിളിച്ച് ഞാൻ സാധനങ്ങളൊക്കെ കേറ്റി വിടാം അതിൻ്റെ കൂടെ വിലയെഴുതിയ പേപ്പറും കൊടുത്ത് വിടാം ആ കാണാം എന്നാൽ ശരി ആ വീണ്ടും കാണാം